വിനോദസഞ്ചാരികൾക്ക് സന്ദർശിക്കാൻ കഴിയുന്ന സാംസ്കാരികമായി പ്രാധാന്യമുള്ള ഒരു ആഘോഷമാണ് ചമ്പക്കുളം മൂലം വള്ളം കളി ചമ്പക്കുളം മൂലം വള്ളം കളിയുടെ ചരിത്രം എന്നുപറഞ്ഞാൽ പറഞ്ഞ് കേട്ടിരിക്കുന്നത് തിരുവിതാംകൂർ മഹാരാജാവ് അമ്പലപ്പുഴ ക്ഷേത്രത്തിലേക്ക് ഒരു പ്രതിഷ്ഠക്കാവശ്യമായ ഒരു വിഗ്രഹം കൊണ്ടുവരാൻ വേണ്ടി കിഴക്കൻ പ്രദേശത്ത് നിന്ന് കൊണ്ട് വന്ന ആ വിഗ്രഹം വള്ളം ചുണ്ടൻ വള്ളങ്ങളുടെ അകമ്പടിയോടെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് കൊണ്ടുവരുന്ന സമയത്ത് ചമ്പക്കുളം കല്ലൂർക്കാട് പള്ളിയുടെ പരിസരത്തെത്തിയപ്പോൾ നേരം സന്ധ്യ ഇരുട്ടി അപ്പോൾ പിന്നെ മുൻപോട്ടുള്ള യാത്ര അവർക്ക് തടസ്സമായി വന്നു അപ്പോളത് എവിടെയെങ്കിലും ആ വിഗ്രഹം വള്ളം അടുപ്പിച്ച് എവിടെയെങ്കിലും ആ വിഗ്രഹം ഇറക്കി വെച്ച് അതിൻ്റെ പൂജ നടത്തി പിറ്റേ ദിവസം രാവിലെ യാത്ര പുറപ്പെടാമെന്നുള്ള ഒരു നിഗമനത്തിൽ ചമ്പക്കുളം മാപ്പിളശ്ശേരി കുടുംബത്തിൽ കാരണന്നവരായിരുന്ന കാരണവരുടെ വീടായിരുന്ന ആ ഭവനത്തിലേക്ക് ഈ വിഗ്രഹത്തെ ഇറക്കി വെച്ചുവെന്നും അവിടെ ആ വള്ളത്തേലുണ്ടായിരുന്ന സേവകന്മാരും ക്ഷേത്രാധികാരികളും അധികാരികൾക്കും ആ കാരണവരുടെ ഭവനത്തിൽ അന്ന് രാത്രിയിൽ അത്താഴം അവർക്ക് വിളമ്പി നൽകി അത് കഴിച്ച് ഓരോരോ സ്ഥലങ്ങളിലായിട്ട് അന്ന് അവർ കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ ആ വിഗ്രഹം എടുത്ത് വള്ളത്തേൽ കയറ്റി അതുവെച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോളാണ് കല്ലൂർ കാട് പള്ളി തൊട്ടടുത്താണ് അവിടെ ആ അതിനോടുള്ള നന്ദി സൂചകമായി കല്ലൂർക്കാട് പള്ളിയിൽ ഇറക്കി വള്ളമടുപ്പിച്ച് അവിടെയും പള്ളിയിൽ കയറി പ്രാർത്ഥിച്ച് വീണ്ടും യാത്ര മുൻപോട്ട് പോയി അങ്ങനെയാണ് അമ്പലപ്പുഴ ക്ഷേത്രത്തിലേക്ക് ആ വിഗ്രഹം എത്തിച്ചത് അതിൻ്റെ ഓർമ്മ പുതുക്കാനായിട്ടാണ് എല്ലാ വർഷവും അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ നിന്ന് കെട്ട് കാഴ്ചകളുമായി ചമ്പക്കുളത്തെ കല്ലൂർക്കാട് പള്ളിയിലേക്കും അവിടെ നിന്നും അന്ന് വള്ളം വിഗ്രഹം വള്ളത്തിൽ നിന്ന് ആ വിഗ്രഹം ആ വള്ളത്തിൽ നിന്നിറക്കാൻ സഹായിച്ച കാർന്നവരുടെ വീടായ മാപ്പിളശ്ശേരി കുടുംബത്തിലേക്കും അമ്പലം ക്ഷേത്രം വകയായ കെട്ട് കാഴ്ചകളും സമ്മാനങ്ങളുമായിട്ട് ക്ഷേത്രാധികാരികൾ വരികയും അവർക്ക് അവരുടേതായ ആ ഒരു വിശ്വാസത്തിൽ അവർ ഈ സാധനങ്ങൾ ഈ ഭവനത്തിലും പള്ളിക്കും കൈമാറി അങ്ങനെയാണ് മൂലം വള്ളംകളിയുടെ കൊടി അവർ ഉയർത്തുന്നത് അതിനുള്ള കോടി ക്ഷേത്രത്തിൽ നിന്നാണ് കൊണ്ട് വരുന്നതും എന്നിട്ട് കല്ലൂർക്കാട് വികാരിയെ ഏപ്പിക്കുന്നു വികാരിയാണത് വള്ളം കളി സ്ഥലത്തേക്ക് കൈമാറുന്നത് അങ്ങനെ ഒരു ചിട്ട ആ ഒരു ചടങ്ങ് അതിങ്ങനെ വർഷങ്ങളായിട്ട് തുടർന്നുപോകുന്നു അങ്ങനെ വള്ളം കളി ആരംഭിക്കുന്നു അതി അതിപ്രസിദ്ധമായ ഒരു വള്ളം കളി തന്നെയാണ് മൂലം വള്ളം കളി ജൂലൈ മാസത്തിലാണ് അത് നടത്തപ്പെടുന്നത് ഒട്ടേറെ ഒട്ടേറെ ആൾക്കാർ പ്രത്യേകിച്ചും നാനാജാതി മതസ്ഥരും പ്രത്യേകിച്ച് അമ്പലപ്പുഴ ക്ഷേത്ര പരിസരത്തുള്ള ആൾക്കാരും ക്ഷേത്രത്തിലെ അധികാരികളും ഒക്കെ പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ് ഈ മൂലം വള്ളം കളി അന്നും ഈ ക്ഷേത്രാധികാരികൾക്കും മൂലം വള്ളം കളിയുടെ സംഘാടകർക്കും ഇടവകയിൽ കല്ലൂർക്കാട് ഫൊറോനാ ചർച്ചിൻ്റെ അധികാരികൾക്കുമായി ഈ മാപ്പിളശ്ശേരി കുടുംബാംഗങ്ങൾ എല്ലാ മൂലം കളി എല്ലാ മൂലംവള്ളം കളിയുടെ അന്നും അവർക്ക് സദ്യ വിളമ്പാറുണ്ട് അവരെ അതിഥികളെ ആദരിച്ച് വളരെ സന്തോഷത്തോടെ ആ സദ്യ ഉണ്ട് ആധിഥേയം സ്വീകരിച്ച് അവരും അതിഥികളെ സ്വീകരിച്ച് കാരണവർ ജീവിച്ചിരുന്ന ആ കുടുംബക്കാരും അവരുടേതായ കടമകൾ വളരെ ഭംഗിയാക്കി ഭംഗിയായി നടത്തി അത് എല്ലാ വർഷവും നടത്തി പോരുന്നു ഞങ്ങളും മൂലം വള്ളംകളിയിൽ പങ്കെടുക്കാറുണ്ട് എല്ലാ കുട്ടികളും പ്രായമായവരും ചെറുപ്പക്കാരും സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ എല്ലാവർക്കും വളരെയേറെ പ്രത്യേകിച്ച് നാടിന് പ്രത്യേക ഒരു ഉണർവ് തരുന്ന ഒരു സംഭവമാണ് മൂലം ചമ്പക്കുളം മൂലം വള്ളം കളിയെന്ന് പറയുന്നത് ഒരു വർഷം പോലും മുടക്കം കൂടാതെ അത് ഇത്രയും നാളുകളായിട്ട് വർഷങ്ങളായിട്ട് ഏതാണ്ട് നൂറ്റി ചില്ല്വാനം വർഷങ്ങൾക്ക് മുമ്പുള്ള നടന്ന ഒരു സംഭവമാണ് ഇന്നും തുടർന്ന് കൊണ്ട് പോകുന്നത്